രാവിലെ പത്രം വന്നാൽ നമുക്ക് വാർത്തകളറിയാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളാ രാവിലത്തെ വർത്തയിൽത്തന്നെ നമ്മളാദ്യം നമ്മൾ കായിക കാ വിനോദങ്ങളാണ് ആദ്യം ഞാൻ നോക്കാറ് നല്ലനല്ല കാര്യങ്ങൾ പിള്ളേർ ചെയ്തത് അല്ലേ എടുത്തത് ആ കാര്യങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം അല്ല ബിസ്സിനെസ്സ് എല്ലാ വാർത്തകളുംതന്നെ ഞാൻ വായിക്കും പത്രം നമ്മൾ എടുത്തു നമുക്ക് രാവിലെ തൊട്ട് നം വന്ന അവിടെനിന്നെനിക്കത് വായിക്കണം അതു പ്രത്യേക ഒരിതാണ് കുറ്റകൃത്യം ഇപ്പം പിന്നെ ഇപ്പോൾ പത്രം തുറന്നു നോക്കിയാലേ കുറ്റകൃത്യം മാത്രമേ ഉള്ളു അതുകൊണ്ട് അതു കാണുന്നതു തന്നെ ഇപ്പോൾ പേടിയാണ് എല്ലായിതും ശാ ശാസ്ത്രപരമായിട്ടു കാണാനും എനിക്കൊത്തിരി ഇഷ്ടമാ ഒക്കെ വായിക്കാനിഷ്ടമാണ് നല്ലതാണ് വിദ്യാഭ്യാസം രാഷ്ട്രീയം രാഷ്ട്രീയം കുഴപ്പമില്ലെന്നു പറയാം എന്നാലും ഇപ്പോഴത്തെ ഇതിനകത്ത് മൊത്തവും കുറ്റകൃത്യത്തിൻ്റെ കഥകൾ മാത്രം ഉള്ളു അത് എല്ലാദിവസവും അതു തന്നെ അതും നമ്മൾ വായിക്കും ഇപ്പോൾ എന്തെല്ലാം ക കാര്യങ്ങളാണ് കുറ്റകൃത്യങ്ങളാണ് ഏതെല്ലാം രീതിയിലാണ് നമ്മൾ വാർത്ത വാർത്തകേൾക്കാത്തുള്ളത് നമ്മൾ വായിക്കുന്നത് ഇതു കാണാറുണ്ട് കാണാറില്ലത് വായിക്കും പിന്നെ നല്ല ബിസിനസ്സ് ബിസിനസ്സും എനിക്കിഷ്ടമാണ് നല്ല ബിസിനസ്സുപരമായ ഷെയർ അതിനകത്തുപോകുന്ന കാര്യങ്ങളൊക്കെ നല്ല ഒരു ഇതാണ് വിനോദവും കാ കായികവും ഇഷ്ടമാണ് എല്ലാം തന്നെ പത്രം രാവിലെ എനിക്ക് വായിക്കാനുള്ളത് എൻ്റെ ഒരു ജീവിതത്തിലൊരു ഹോബി പോലെയാണ് ഞാൻ എനിക്കത് വായിച്ചില്ലെങ്കിൽ ഒരുനേരം ആഹാരം കഴിക്കാത്തതുപോലെയാണ് രാവിലെ എല്ലാ എനിക്ക് കായികവും എല്ലാംതന്നെ സംഭവം ഇഷ്ടമാണ് പത്രം വായിക്കുന്നതുതന്നെ എനിക്കൊരിഷ്ടമാണ് എല്ലാം ഞാൻ വായിക്കും ഒന്നുംവിടാതെ ഏതെല്ലാം എല്ലാകാര്യങ്ങളുണ്ട് അതെല്ലാം വായിച്ച് വായിച്ചിട്ടേ ഞാൻ അടുത്ത പണിചെയ്യത്തുള്ളു എനിക്കിഷ്ടം ഉള്ളൊരു കാര്യമാണ് കായികം പിന്നെ എല്ലാംതന്നെ കുറ്റകൃത്യം പറഞ്ഞാൽ അതും ഞാൻ വായിക്കും അതിൻ്റെ എല്ലാം ഞാൻ വായിച്ചു കേൾക്കുന്നതാണ്